വയനാട്ടിലെ പ്രധാന സാമ്പത്തിക ഘടകങ്ങളെന്ന് പറയുന്നത് കൃഷി വ്യവസായം എന്നിവയെല്ലാമാണ് നിരവധി വ്യവസായ ശാലകളും ഇവിടെയുണ്ട് പ്രധാനമായും കൃഷിയാണ് ഇവിടുത്തെ മുഖ്യ സാമ്പത്തിക ഘടകമെന്ന് പറയുന്നത് തോട്ടവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും കൃഷി ചെയ്യുന്നു കാപ്പി തേയില ഏലം കുരുമുളക് റബ്ബർ എന്നിവയാണ് പ്രധാന തോട്ടവിളകൾ കാപ്പിയും കുരുമുളകും ഇടകലർത്തിയുള്ള കൃഷിയും വയനാടിൻ്റെ പ്രത്യേകതയാണ് അവയിൽ നിന്ന് ധാരാളം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു അതുപോലെ വിവിധങ്ങളായ ചെറുകിടസ്ഥാപനങ്ങളും ഉണ്ട് റെഡി മെയ്ഡ് ആൻഡ് തയ്യൽ ഫ്ലോർ മിൽ ബ്യൂട്ടി പാർലർ ഗ്രിൽ ഗ്രേറ്റ് നിർമ്മാണം ഓട്ടോമാറ്റിക് മൊബൈൽ വർക്ക് ഡിജിറ്റൽ സ്റ്റുഡിയോ ഫിലിം മേക്കിങ് ബേക്കറി എന്നിവയെല്ലാം ചെറുകിടസ്ഥാപനങ്ങളാണ് പ്രധാന വ്യവസായ സംരംഭങ്ങളാണ് കിൻഫ്രാ ഇൻഡസ്ട്രി പാർക്ക് കൽപ്പറ്റ ആഷിഖ് കെമിക്കൽസ് ആൻഡ് കോസ്മെറ്റിക്സ് സുൽത്താൻ ബത്തേരി പാണ്ട ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ്സ് കൃഷ്ണഗിരി എന്നിവ